ഹലോ ഞാൻ ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്

നെക്സ്റ്റ് മന്ത് നവമീൻ്റെയൊക്കെ ടൈമാകുമ്പോഴേക്കും മതിയോ നിങ്ങൾക്ക് കൊച്ചിൻ ആണോ ആ കൊച്ചി എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്താൽമതി അപ്പം നമുക്കവിടെ ആ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം ആ സ്റ്റേ അവിടെ എവിടെയാണുള്ളത് ഞങ്ങൾ ഒരേഴുപേരുണ്ടാവും

ഇല്ല ബഡ്ജറ്റ് പ്രശ്നം ഇല്ല നമുക്ക് പെർ ഡേയാണോ വരുന്നത് ഓക്കെ

അപ്പം ലഞ്ചും ഡിന്നറൊക്കെയോ എക്സ്ട്രാ പേ ചെയ്യണം

ഓക്കെ നമുക്ക് ഈ പിന്നേ ഈ റിസോർട്ട് പോലുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ ഹോംസ്റ്റേയോ അങ്ങനെ ഉള്ള ഇത് നോക്കാൻ പറ്റുമോ നമുക്ക് ഫുൾ ഓക്കെ ഞങ്ങൾ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മതി അവിടെക്കഴിഞ്ഞ് പിന്നെ ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരിക്കുമല്ലോ നമ്മളെന്തായാലും തിരിച്ചു റൂമിലോട്ട് വരിക

എക്സ്ട്രാ പേ ചെയ്യേണ്ടിവരും ആണോ നമുക്കൊരു മൂന്ന് റൂം വേണം അപ്പം മൂന്ന് റൂമും പിന്നെ നമ്മുടെ ഓക്കെ അപ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് വരും നമ്മളത് ആദ്യം തന്നെ പേ ചെയ്യേണ്ടി വരുവോ നമ്മൾ ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് വേണോ ഓക്കെ ഓക്കെ ഓക്കെ ഞങ്ങളപ്പം ഞാൻ വിളിക്കാം ഞാൻ പിന്നെ വരുന്നതിൻ്റെ രണ്ടുദിവസം മുൻപ് അവിടെയായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങളത് ചെയ്താൽമതി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം ആരാണത് സൂപ്പർ